മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷയെ സംരക്ഷിക്കാനായി ഏറ്റവും കൂടുതൽ ശ്രമങ്ങള് നടത്താറുള്ളത് അധ്യാപകരാണ് പിന്നെ മാതാപിതാക്കളും അതിൻ്റെ ഒരു ഭാഗമൊക്കെ ആകാറുണ്ട് കുഞ്ഞു പിള്ളേരെ ചെറിയ പ്രായം മുതല് അവര് വളർന്ന് വളർന്ന് വരുമ്പോൾ ഓരോ ക്ലാസ്സുകളിലും മലയാളം കൂടുതൽ കൂടുതൽ എഴുതാനും നന്നായി വായിക്കാനും എല്ലാം അധ്യാപകരും മാതാപിതാക്കളും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകള് ഒക്കെ ലഭിക്കാറുണ്ട് എവിടെ ചെന്നാലും നമ്മുടെ മാതൃഭാഷക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മലയാള ഭാഷയെ സംരക്ഷിക്കാനായി എല്ലാ സ്കൂളുകളിലും മലയാളം കൂടുതൽ ആയിട്ട് ഇതാക്കാൻ വിദ്യാഭ്യാസ വകുപ്പും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കേരളം തന്നെ മലയാള ഭാഷയെ സംരക്ഷിക്കുന്നുണ്ട് എല്ലാവരും തന്നെ മലയാള ഭാഷയെ സംരക്ഷിക്കാനായി ഓരോരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്